എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരു ഡ്രോയിങ് ക്ലാസിന് പോയിട്ടുണ്ട് പോവുമ്പേന്ന്വച്ച്ട്ട്ണ്ടെങ്കിൽ എല്ലാം അതിന് മുന്നേക്കേ എൻ്റെ വിചാരംന്ന്വച്ച്ട്ട്ണ്ടെങ്കിൽ ഓ ഇത് വലിയ കാര്യോന്നൂമല്ല ഇതെല്ലാവർക്കും പറ്റണൊരു കാര്യമാണ് എപ്പോഴും വെറുതെ ജസ്റ്റ് പെൻസിലും കൊണ്ട് ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് എന്തേലൊക്കെ ഇങ്ങനെ ജസ്റ്റ് മതി ഇരുന്നോണ്ട് അതിനിപ്പോൾ ഇത്ര വലിയ സംഭവോന്നൂല്ല ഇതാർക്കു വേണമെങ്കിലും പറ്റും ഇത് ഇങ്ങനെ ഇതിനെ ഇപ്പിത്ര ക്ലാസ് വെക്കേണ്ട ആവശ്യം എന്തിന് ഇതെല്ലാവർക്കും പറ്റണതല്ലേ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ക്ലാസിനു ചെന്നതിന് ശേഷമാണ് എൻറ്റാ ചിന്താഗതി മുഴുവൻ മാറിപ്പോയത് കാരണം എത്രത്തോളം കഴിവുള്ളവരാണ് അവിടെ വന്നേക്കണതെന്ന് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കുമൊരു വൽ വളരെ വലിയൊരു കല തന്നെയാണ് ഇത് പിന്നേന്ന് വെച്ചേണ്ടെങ്കിൽ ഓ നമ്മൾ വരയ്ക്കണവരൊക്കെ പിന്നെ ഭയങ്കര ഭക് ഭയഭക്തിയോടു കൂടെ ഞാൻ കണ്ടുകൊണ്ട് കണ്ടിരുന്നത് വളരെ മനോഹരമാണ് അവർ വരയ്ക്കുന്ന ഓരോ പിക്ചറും എല്ലാം എൻ്റെ വിചാരംന്ന്വച്ചേട്ട്ണ്ടെങ്കിൽ ഒരു മലയും സൂര്യനേക്കെ വരച്ചാൽ മാത്രം മതി അതങ്ങനെ പോകുന്നായിരുന്നു പക്ഷേ അതല്ല ഡ്രോയിങ് എന്ന് എനിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റി